ഇത് റഹ്മത്ത് ഹോട്ടലല്ലേ ഞാന് ഒരു ഇരുപത് പേർക്ക് പിന്നെ ഫുഡിനുള്ള ടേബിൾ അറേഞ്ച്മെൻ്റെസ് പിന്നെ പാർക്കിങ്ങ് ഒക്കെ ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒരു മൂന്ന് നാല് കാറിലായിരിക്കും വരുന്നത് നാല് അല്ലേൽ മൂന്ന് കാറിലും രണ്ട് ബൈക്ക് ഒക്കെയായിട്ടായിരിക്കും വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം പാർക്കിങ്ങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് കാരണം നമുക്ക് വന്ന് കഴിഞ്ഞ് നമുക്ക് ഒരു ഒരു ഒരു മുക്കാമണിക്കൂറ് ഒരു മണിക്കൂറ് വരെ നമ്മള് ആ ഹോ പിന്നെ ഹോട്ടലില് സ്പെന്റ് ചെയ്യുന്നുണ്ട് ഫാമിലി ആയിട്ട് ഫുഡും കഴിച്ച് വാർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പിന്നെ ഡൈനിംഗ് ടേബിള് സൗകര്യവും എല്ലാം ടേബിളോക്കെ ഉണ്ടോ ഇപ്പം വന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിവിടുന്നൊരു അര മണിക്കൂറിനിറങ്ങും വന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഫെസിലിറ്റിസൊക്കെ ഉണ്ടോ പാർക്കിങ്ങ് ഏരിയ ഉണ്ടോ എല്ലാം നമുക്ക് ലഭ്യതേനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാലല്ലേ നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റുവുള്ളു കാരണം നമ്മളത്രയും പേര് അവിടെ വരുമ്പം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഏരിയയും വേണം ഫുഡിന് വെയ്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനായിരുന്നു